നമ്മടെ നാട്ടില് തന്നെ സംസ്ഥാനത്തിൻറ്റേതായ ഒത്തിരി സംസ്കാരമുണ്ട് ഈ സംസ്കാരങ്ങള് സൂചിപ്പിക്കുന്ന ഒത്തിരി പാരമ്പര്യങ്ങളും ചിഹ്നങ്ങളും മൂല്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലതന്നെ ഈ സംസ്കാരത്തില് വരുന്നതാണ് ഓരോ നൃത്തരൂപങ്ങള് കലാരൂപങ്ങള് അങ്ങനെ കുറേ ഉണ്ട് ഈ കലാരൂപങ്ങളിൽ വരുന്ന ഒന്നാണ് നൃത്തരൂപങ്ങൾ കഥകളി പിന്നെ തെറിപ്പാട്ട് മാപ്പിളപ്പാട്ട് അങ്ങനെ ഒത്തിരി കലാരൂപങ്ങളുണ്ട് അതിപ്പോള് ഓരോ സംസ്ഥാനത്തിന്റെയും ഓരോ മതത്തിന്റെയും സംസ്കാരത്തിൻ്റെയും ഓരോ സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും പ്രതിനിധാനം ചെയ്യുന്നതാണ് അതൊക്കെ എല്ലാ പാരമ്പര്യങ്ങളിലും അതിൻറ്റേതായ പൈതൃകവും ഈ സാംസ്കാരിക സ്വത്വവും എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് ഓരോ ഓരോ പാരമ്പര്യത്തിൽ അല്ലെങ്കില് ഒരോ കലാ കരകൗശല മേഖലയിലും അതിൻറ്റേതായ മൂല്യങ്ങളുണ്ട് ഇപ്പോള് നമുക്ക് ഓരോന്നിലും പറയുന്നെ ഇപ്പോള് ഒരു കഥകളി വച്ചിട്ടുതന്നെ അതിലൊത്തിരി മൂല്യങ്ങള് നമുക്ക് കാണാൻ പറ്റും ഇല്ലെങ്കില് ഒരു ഇപ്പോള് മാർഗംകളി എന്ന്പറഞ്ഞ കലാരൂപത്തില് അത് ഒരു ക്രിസ്ത്യാനിയുടെ സംസ്കാരം നമ്മടെ നാട്ടിലുള്ള ക്രിസ്ത്യാനികളില് ഇപ്പോള് മാർത്തോമാ നസ്രാണികളുടെ സംസ്കാരത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ മാർഗംകളി എന്ന് പറയുന്നത് അപ്പോള് അതില് അവരുടെ ചരിത്രവും അങ്ങനത്തെ കുറെ കാര്യങ്ങളും മൂല്യങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് മാർഗംകളി എന്ന് പറയുന്നെ അതുപോലെ തന്നെ ഇപ്പോള് കല കലയില് വരുന്ന ഒത്തിരി കാര്യങ്ങളൊക്കെ അതിൻറ്റേതായ ഒരിത് വരുന്നുണ്ട്